സമയത്തിനുള്ളിൽ പിന്നെ ചെയ്ത് തീർക്കേണ്ടി വന്നിട്ടുള്ള അതായത് എനിക്കൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട ഒരു വർക്ക് വന്നു അതായത് വർക്ക അല്ല ഒരിത് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ പി എസ് സി പഠനം തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി കിട്ടാൻ വേണ്ടി ഞാൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷമാണ് എൽ ഡി എനിക്ക് കിട്ടിയത് ഇപ്പം ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അത് അതായത് അന്നത്രക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കിട്ടിയൊരു ജോലിയാണെനിക്ക് എൽ ഡിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കഴിഞ്ഞ വർഷമാണ് കിട്ടിയത് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാല് വർഷം കഴിഞ്ഞിട്ടേ എൽ ഡീൻ്റെ ഇതിന് വിളിക്കുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് നേടിയൊരു പിന്നെ ജോലിയാണെൻ്റെ ഞാനിപ്പം ചെയ്തു കൊണ്ടിരിക്കുന്ന ജോലി അതായത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഞാൻ രാപ്പകലില്ലാണ്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഫുൾ ടൈം ഞാൻ പഠിത്തമായിരുന്നു അപ്പം വീട്ടുകാർ തന്നെ എന്നെ ചീത്ത പറയുമായിരുന്നു ഇങ്ങനെ ഫുൾ ടൈം പഠിക്കണ്ട ഇടക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങ് ഞാൻ അങ്ങനെ പഠിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ചിട്ട് കിട്ടിയൊരു ജോലിയാണെനിക്കിപ്പം ഞാൻ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നത്